മതത്തെ സംബന്ധിച്ചെടുത്തോളം രാഷ്ട്രീയ സങ്ങത സൃഷ്ടിക്കാൻ മതത്തെ മുൻകൈ എടുക്കുന്നതായിട്ട് മുതലെടുക്കുന്നതായിട്ടൊന്നും നമുക്കങ്ങനെ ഫീല് ചെയ്യാറില്ല കാരണമെന്നാന്ന് ചോദിച്ചാൽ ഒരു മതത്തെ കേന്ദ്രീകരിച്ച് കരിച്ച് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്രത്തോളം വിജയിക്കാൻ സാധ്യത ഇല്ലാന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ് കാരണം രാഷ്ട്രിയക്കാർ എപ്പോഴും മതത്തേക്കൂടെ സപ്പോട്ട് ചെയ്ത് അവരാ രീതിയിലാണ് രാഷ്ട്രീയക്കാരെ കൊണ്ട് പോകുന്നത് ഒരു കച്ചവടമാക്കി മതത്തെ ഉപയോഗിക്കുന്നതായിട്ടുള്ള അറിവൊന്നും നമുക്കില്ല അങ്ങനെ വന്ന് കഴിഞ്ഞാൽ തന്നെ അത് വിജയിക്കാനും സാധ്യതയില്ല കാരണം കലാപത്തിനുള്ള ഒരു സംഘർഷം അവിടെ സൃഷ്ടിക്കുക മാത്രമേ ചെയ്യാറുള്ളു എല്ലാവരും സമാധാനപരമായിട്ട് പിന്നെ മത സൗഹാർദ്ദം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ നമ്മുടെ മതത്തിൽ വിശ്വസിയ്ക്കേം മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കുകയും അവരുടെ കാഴ്ച്ചപ്പാടിനെ ബഹുമാനിച്ചുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെ പേരിലൊരു രാഷ്ട്രീയ കച്ചവടം രാഷ്ട്രീയക്കാരത് മുതലെടുക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നില്ല രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അത് പരസ്പരം രാഷ്ട്രീയ കഷികൾ തമ്മിലുണ്ടാവുന്ന വിഷയങ്ങളാണ് ഒരു രാഷ്ട്രീയക്കാർ മറ്റൊരു രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ് അതിൽ നിന്നുണ്ടാകുന്ന അല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷത്തെ അത് അത് വഴി മതത്തിൻ്റെ മതത്തെ അങ്ങോ അവനിലേക്ക് വലിച്ചിഴച്ച് മതപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവാനായിട്ട് സാധിക്കുന്നില്ല കാരണം മതപരമായിട്ട് നമ്മൾ പോ സംഘർഷങ്ങളുണ്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് എന്നാൽ ഒരു മതത്തെ നമ്മൾ അവഗണിക്കുവോ അവോയ്ഡ് ചെയ്യുവോ അവരുമായിട്ടെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്ന് കഴിഞ്ഞാൽ മറ്റുള്ള മതക്കാരത് കണ്ട് നിൽക്കാൻ ഉള്ള അവസ്ഥ ഉണ്ടാകത്തില്ല കാരണമത് പിന്നീട് കൂടുതൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോവുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൂടുതൽ സങ്കീർണം ആവാനെ അതിന് സാധിക്കുകയുള്ളു അത്കൊണ്ട് മതത്തെ ഒരു കച്ചവടമായി ഉപയോഗിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല എന്നെ ഇത് നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചെടുത്തോളം രാഷ്ട്രീയമായിട്ടുള്ള പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളെ ഉള്ളു അതായത് അതിനകത്ത് മതത്തെ ഉൾപ്പെടുത്തി പോകാൻ പോത്തുമില്ലാ പോവാൻ പറ്റത്തുമില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനൊരു സാഹചര്യം വന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മൾക്ക് ഒരു വർഗ്ഗീയ കലാപം തന്നെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വർഗ്ഗീയമായിട്ടുള്ള കലാപം നമ്മളഴിച്ച് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും അത് നമ്മുടെ ജീവിതത്തേയും മറ്റുള്ള മറ്റുള്ള മതത്തെ നമ്മളൊരു മതക്കാർ മറ്റുള്ള മതക്കാരെ അവോയിഡ് ചെയ്യുമേ അവർക്കെതിരെ എന്തെങ്കിലും സംസാരിക്കേം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മത വിഭാഗം വിഭാഗിയരായുള്ള ആൾക്കാർ ഇറങ്ങുകയും ഒരുപാട് മത ഭീഷണികൾ ഉണ്ടാവുകയും പരസ്പരം ഒരുപാട് സന്തോഷങ്ങളുണ്ടായി അതുവഴി ഒരുപാട് നഷ്ടങ്ങളും നാശങ്ങളുമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അതുകൊണ്ട് ഒരിക്കലും മതത്തെ ഒരു കച്ചവടമായി ഉപയോഗിച്ച് കൊണ്ട് രാഷ്ട്രീയം സംഘർഷം സംഘർഷം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഇല്ലെന്നാണ് എന്നാണ് ഒരു അഭിപ്രായം അതേ എനിക്ക് പറയാൻ